ആ ഹലോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ത് ഗുളികയാണ് കഴിച്ചത് മ് അതുകൊള്ളാം പാരസെറ്റാമോളോക്കെ എങ്ങനെ നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസില്ലാതെ അങ്ങനെ കഴിക്കുന്നത് ശരിയല്ല അത് ചോദിച്ചിട്ടു വേണ്ടേ കഴിക്കാന് മ്

ഷുഗറോ വല്ലതുമുണ്ടോ പ്രേഷറോ കൊളസ്ട്രോളും മ് ഇതിപ്പം പനിയും പിന്നെ കകണ്ടിന്യൂസ് ഇങ്ങനെ വരും ഒരു ആറു മണിക്കൂർ ഇടവിട്ടിടവിട്ടാണോ പനി വന്നോണ്ടിരിക്കുന്നത് ജലദോഷമുണ്ടോ ജലദോഷമുണ്ടോ ആ വിശപ്പുണ്ടോ ആ മ് ഏതായാലും നമുക്ക് ഒന്ന് നേരിട്ട് വന്ന് കണ്ടിട്ടേ അഥവാ ഇനിയും പിന്നെ ഈ മെഡിസിനൊക്കെ തന്നു കഴിഞ്ഞിട്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഇച്ചിരെ ബ്ലഡ് വല്ലതും ബ്ലഡ് വല്ലതും ടെസ്റ്റ് ചെയ്തു നോക്കിയിട്ട് നമുക്ക് വീണ്ടുമത് കണ്ടിന്യൂ ചെയ്യാം ഇപ്പം ഒരു കാര്യം ചെയ്യാം ഏതായാലും വന്നു നേരിട്ടു ഒന്നു കാണുക അതു കഴിഞ്ഞതിന് ശേഷം ബ്ലഡുമൊക്കെ നോക്കി അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നമക്ക് ബാക്കി കാര്യങ്ങള് മുന്നോട്ട് പോകാം നീങ്ങാം ശരിയെന്നാൽ ഓക്കെ ഓക്കെ മ് ഓക്കെ